ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് നിരവധിയായി പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത് അതിൽ ഏറ്റോം പ്രാധാന്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ഇവിടെ ഭൂരിഭാഗം ജനം ജനങ്ങളും കൃഷിയേ ആശ്രയിച്ചാണ് ഇടുക്കിയിലെ മലയോര മേഘലയിലെ ജനങ്ങൾ അദിവസിക്കുന്നത് ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് നിരവധി മലകളും കാടുകളും വന വന മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലും ജനങ്ങൾ അധിവസിക്കുന്നുണ്ട് ഇവിടെ നിരന്തരമായി വന്യ മൃഗങ്ങളും ജനങ്ങളും തമ്മിൽ രൂക്ഷമായ ഒരു ജീവൻമരണ പോരാട്ടം എന്ന് പറയത്തക്കെ രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് കണ്ട് വരുന്നത് നാളിതുവരെയായി ഗെവർമൻറ്റ് ഭാഗത്ത് നിന്ന് ഫലപ്രദമായ ചെറുത്ത് നിൽപ്പിന് വേണ്ടി ഉള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപടികളും ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ പോലും അതിനെ ഒരു പരിധി വരെ ചെറുക്കാൻ മാത്രമേ ഈ നടപടികൾ കൊണ്ട് സാധ്യമായിട്ട് ഉള്ളു ഇതിനെ പൂർണ്ണമായ രീതിയിൽ ചെറുത്ത് ചെറുത്ത് നിൽക്കാൻ ഉള്ള ഒരു സംവിധാനം ഇത് വരെ ഇവിടെ ഒരുങ്ങിയിട്ട് ഒരുങ്ങിയിട്ട് ഇല്ല എന്നുള്ളത് വസ്തുതയാണ് നാളിതുവരെ നിരവധി കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരവധി ആളുകൾ ഈ വന്യമൃഗങ്ങളും ആയിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെടുകയും ദാരുണമായിട്ടുള്ള മാരകമായ പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു ഈ അടുത്ത കാലത്തിപ്പീ ഏതാനും ദിവസങ്ങൾ നമ്മൾ വാർത്ത പത്രം വാർത്തകളിൽ നിരന്തരം മാധ്യമങ്ങളിൽ കാണുന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്യമൃഗങ്ങളും ജനങ്ങളും തമ്മിൽ ഉള്ള സംഘർഷം ഇത് ഫലപ്രദമായി തടയണം എങ്കിൽ ഗെവർമെൻറ്റൊര് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഇടുക്കിയിൽ നിരവധി വനമേഘലകളും ഈ വനമേഘലകളോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ജനങ്ങൾ താമസിച്ച് അവരവർ ജീവനോപാധിയായ കൃഷിയെ ആശ്രയിച്ചാണ് ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് അപ്പം ഈ കടന്ന് കയറ്റം ഈ വന്യമൃഗങ്ങളുടെ കടന്ന് കയറ്റം ആന പുലി കടുവ കാട്ടുപന്നി മുതലായ പല മുതലായ വനജീവികൾ ജനങ്ങൾ അധിവസിക്കുന്ന മേഘലയിലേക്ക് കടന്ന് കയറുകയും അവരെ കൃഷി നശിപ്പിക്കുകയും അവരുടെ സ്വത്തിനും ജീവനും ഭീഷണി ആകുന്ന തരത്തിലുള്ള പ്രവർത്തികളുവാണ് നടന്ന് വന്നിരിക്കുന്നത് ഇത് ഇടുക്കിയിലേ ജനങ്ങൾ അഭിമുഘീകരിക്കുന്ന ഏറ്റോം രൂക്ഷമായിട്ടുള്ള ഒരു ഒരു വിഷയം തന്നെയാണ് അവരെ അവർ മുൻപിൽ നിൽക്കുന്ന ഏറ്റോം ഒരു പ്രാധാന്യം അർഹിക്കുന്ന മനുഷ്യൻ എന്നും ഈ ഇടുക്കിയിലെ ജനങ്ങൾ മലയോര മേഘലയിലെ ജനങ്ങൾ എന്നും കൃഷി മണ്ണിനോടും വനത്തോടും മല്ലിടിച്ച് ഇപ്പം ഇപ്പം വന്യ മൃഗങ്ങളോടും മല്ലടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണം കാട്ടാന കൂട്ടമായിട്ട് കടന്ന് വരുന്നു ജനവാസ മേഘലയിലേക്ക് കടന്ന് വരുന്നു അതുപോലെ കൃഷി നശിപ്പിക്കുന്നു കാട്ട്പന്നിയായാൽ പോലും ജനങ്ങൾക്ക് ഒരു രീതിലമുള്ള ഒരു സുരക്ഷിതത്വം ഇന്ന് ഇന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നേയില്ല ഇതിനെതിരെ ഗെവർമെൻ്റ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം എന്ന് വിനീതമായിട്ട് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുക ആണ് അതുപോലെ തന്നെ ഇടുക്കിയിലെ ജനങ്ങൾ അഭിമുഘീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കാർഷിക മേഖലയിലെ വില തകർച്ച ഇടുക്കിയിലെ ഭൂരി ബഹുഭൂരിപക്ഷോം ആളുകൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവരെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു മിതമായ നിരക്കിലുള്ള ഒരു വിപണിയിലെ മാർക്കറ്റ് വില എന്ന് വെച്ചാൽ മിതമായ നിരക്കിലുള്ള ഒരു വില ലഭിച്ചാൽ മാത്രമേ അവർക്ക് കൃഷി കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ലാഭം ലഭിക്കുക ഉള്ളു എന്ന ഇന്ന് വർദ്ധിച്ച് വരുന്ന ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചിലവുകൾ അത് വർദ്ധിച്ച് ദിനംപ്രതി വർദ്ധിച്ച് വരുവാണ് ഇപ്പോൾ വളങ്ങൾ രാസവളങ്ങളായാലും കീടനാശിനികളായാലും തൊഴിലാളികളുടെ വേദനമായാലും വർദ്ധിച്ച് വരുന്നു എന്ന് ഫൈനൽ വിപണീ നമ്മൾ ഈ കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഒരു ഒരു ഒരു വിപണിയിൽ ഒരു മാർക്കറ്റ് ഫലപ്രദമായൊരു മാർക്കറ്റിൽ ഒരു വിപണി വില ലഭിക്കുക ആന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് അത് മുമ്പോട്ട് പോവ്വോ എന്നുള്ളത് വളരെ ദുർഘടമായ ഒരു ഒരു അവസ്ഥ ഒരു വിഷയമാണ് ഗെവർമെൻ്റ് ഈ അതുപോലെ തന്നെ വളർച്ച വരൾച്ച വരൾച്ച കീടങ്ങളുടെ ആക്രമണം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൃഷി നശിക്കുന്നു മൺസൂൺ സമയത്തുള്ള കൃഷിനാശം ഇവ മൂലം എല്ലാ കർഷകരെ വളരെ അധികം പ്രതിസന്ധി അഭിമുഖികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതുപോലെ മറ്റൊരു ഇടുക്കിയിലെ മറ്റൊരു പ്രധാന വിഷയമാണ് ഇവിടുത്തെ പട്ടയ വിഷയം പട്ടയമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങളും സമര പരിപാടികളും അത് ഏത് കുടിയേറ്റ മേഘല എന്ന് ആരംഭിച്ചോ ആ ആ കാലഘട്ടം മുതൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കർഷകർ പ്രതി പ്രതിഷേധവും ധരണിയും സമരോം ജീവൻമരണ പോരാട്ടം വരെ ഇവടെ നടക്കുക ഉണ്ടായി ഈ ഇന്നും ഇടുക്കിയിൽ ഒരു കുറെ അധികം ആളുകൾക്ക് ഈ പട്ടയം ലഭിക്കാൻ ഉണ്ട് അവരതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അവർ അതിന് വേണ്ടി ഉള്ള ആളുകളുമായിട്ട് അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അതിന് വേണ്ട നിവേദനവും അപേക്ഷ എല്ലാം നൽകി കാത്തിരിക്കുവാണ് ശാസ്ത്രമായി ഒരു പരിഹാരമാണ് ഇതിന് ഗെവർമൻ്റ് തലത്തിൽ നമുക്ക് ആവശ്യമായി വരിക അതുപോലെ അടുത്തൊരു ഒരു കാര്യഘട്ടം ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ നിർമ്മാണ മേഘലയിലെ പ്രതിസന്ധി പട്ടയ പട്ടയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിർമ്മാണ മേഘലയിൽ ഒരനിശ്ചിതത്വം നില നിൽക്കുകയാണ് കാരണെന്നെച്ചാൽ ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അംഗീകരിച്ച ഒരു നിലപാട് എടുക്കുകയും ചെയ്യുക ഉണ്ടായി ആയതിനാൽ ഇവിടെ ഒരു കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾക്ക് ഒരു പരിപൂർണ്ണ നിയന്ത്രണം എന്ന രീതിയിൽ അവിടെ അധീവ പരിസ്ഥിതി ദുർ പ്രദേശമായി ഗെവൺമെൻ്റ് കണക്കാക്കിയതിനാൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുക ഉണ്ടായി അത് ഇവിടുത്തെ വികസനത്തിന് ഒരു തടസ്സമായി വികസനം ഒരു മുരടിപ്പാണ് ഇവിടെ അപ്പോൾ മലയാര ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടുക്കിയിലെ വികസനമെന്ന് പറയുന്നത് തൊട്ട് തീണ്ടീട്ടില്ല ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുകയോ എന്ന് എന്നതിന് ഉപരി എന്തെങ്കിലുവൊരു വരുമാനം എന്ന രീതിയിൽ ഒരു കൊമേസ്യൽ പർപ്പസിന് ഒരു ബിൽഡിങ്ങ് വെക്കാനോ മറ്റ് കാര്യങ്ങൾക്കൊ ഒരു ബിൽഡിങ്ങ് അതിന് പെർമിറ്റ് ലഭിക്കയില്ല ഗെവർമെൻ്റ് തലത്തിലതിനൊരു അനു ഒരു അനുവാദമില്ല അപ്പം ആ ഒരു പ്രതിസന്ധി ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖികരിക്കുന്ന വലിയ ഒരു പ്രശ്നം ഒരു ഒരു ഒരു പ്രസ്തുത ഒരു വിഷയം തന്നെയാണ് മറ്റെന്ന് മറ്റൊരു മേഘല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നല്ല ഒരു ആശുപത്രിയോ ഒരു ഇൻഫ്രാസ്ട്രക്ചറായിയിട്ടുള്ള ഒരു ഒരു ഒരു കാഴ്ച്ചയോ ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാൻ അങ്ങ അത്തരത്തിലുള്ള ഒരു വികസനം ഒരു ഒരു ഹൈട്ടെക്ക് രീതീലുള്ള ഒരു വികസനമോ റോഡ്കൾടെ നവീകരണമോ മലയോര ഹൈ വേടെ നിർമ്മാണമോ ഇതൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഗ്രാമീണ മേഘലയിൽ അതുപോലെ തന്നെ അസങ്കടിതരായ കൃഷിക്കാർ അസങ്കടിതരായിട്ടുള്ള തൊഴിലാളി വർഗ്ഗം അവർ അധികവും തൊഴിലാളികളും ഈ തിങ്ങി പാർക്കുന്ന സ്റ്റേയ്റ്റ്കൾ ഇവർക്ക് ഒന്നും അടിസ്ഥാന പരമായിട്ടും ആരോഗ്യപരം ആരോഗ്യ പരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ പരമായിട്ടുള്ള ഒരു മുൻഗണനേം ഇടുക്കിയെ സംബന്ധിച്ച് ലഭിക്കാൻ ലഭിക്കുന്നില്ല അടിസ്ഥാന പരമായിട്ടും ഒക്കെ